ഹലോ ഹലോ പറഞ്ഞോളൂ അതെ പറയൂ മേഡം ആ ഓക്കെ മേഡം ഇപ്പോൾ ഏതെങ്കിലും കാർ ചൂസ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ ആ മേഡം എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യാനാണോ വണ്ടി ആ ഓക്കെ നല്ലത് എടുക്കാനാണ്

ആ എക്സ്ചേഞ്ച് ചെയ്യാനാണല്ലേ ആ ഓക്കെ അപ്പോൾ മേഡത്തിൻ്റെ ഏകദേശമൊരു ബഡ്ജറ്റ് ഒക്കെ എത്രയാണ് വരുന്നത് മതി അപ്പോൾ എസ് യൂ വി ടൈപ്പ് നോക്കാനാണോ വലിയ വണ്ടി നോക്കാനല്ലേ ആ ഓക്കെ നമുക്കിപ്പോൾ ബലേനോ വരുന്നുണ്ട് പക്ഷെ അത് എസ് യൂ വി ടൈപ്പല്ല നോർമല് തന്നെയാണ് പിന്നെ ബ്രെസ്സ ആണെങ്കിൽ ഉണ്ട് അതിപ്പോഴൊരു നമ്മൾക്ക് ബേസ് മോഡലിന് ഒരു ഒമ്പതുലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപേൻ്റെ അടുത്താണ് വണ്ടിക്ക് വില വരിക ലോ ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഡൌൺ പേയ്മെന്റൊരു ആ കളറ് നമുക്ക് സ്റ്റോക്ക് ഉള്ള കള്ളറിൽ ഏതു വേണമെങ്കിലും മേഡത്തിന് ചൂസ് ചെയ്യാം എങ്ങനെ മനസ്സിലായില്ല മോഡല് അതിപ്പോൾ ഫ്രഷല്ലെ മേഡം അപ്പോൾ നമുക്കിപ്പോൾ ഏത് വർഷമാണോ മേഡം എടുക്കുന്നത് ആ വർഷത്തിലെ ഡേറ്റായിരുന്നു വരിക ഓക്കെ ഈ നമ്പറിൽ വാട്ട്സപ്പുണ്ടോ മേഡത്തിന് ഓക്കെ ഞാൻ വാട്ട്സപ്പ് ചെയ്യാം ആ ഓക്കെ എല്ലാ ഡീറ്റൈൽസും കാര്യങ്ങളും റേറ്റും എല്ലാം ഞാൻ മേഡത്തിന് അയച്ചു തരാം ഇ എം ഐ ആയിട്ട് എടുക്കാനാണോ ഇ എം ഐ ആണല്ലേ ആ ഓക്കെ ആ അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ കയ്യിലുള്ള വണ്ടി ഏതാണ് മോഡല് പതിനേഴ് ആണല്ലേ ആ ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു റേറ്റും കാര്യങ്ങളും ഞാൻ മേഡത്തിന് അയച്ചു തരാം എന്നിട്ടു മേഡം താല്പര്യം ഉണ്ടെങ്കിൽ ഷോറൂം വരെ ഒന്ന് വന്നാൽമതി ഓക്കെ എന്നാൽ